വൻകിട കാർഷിക മേഖലയിൽ നിന്നുള്ള കർഷകർ അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വൻകിട കർഷകർ അവരുടെ ഉല്പന്നങ്ങൾ നിസാരം തക്കാളി ഒക്കെ പോലുള്ളത് നിസാര വിലകൾക്ക് നമ്മുടെ മാർക്കെറ്റിൽ എത്തിക്കുന്നു ഒന്ന് കാരണം ഒന്ന് അവർക്ക് വേതനം കുറവായത് കാരണാൽ ആയതിനാൽ കൂടുതൽ ജോലിക്കാരെ വെച്ച് ഏക്കറ് കണക്കിന് സ്ഥലങ്ങൾ കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കുന്നു രണ്ട് അവർക്ക് ആ മറ്റു സംസ്ഥാനങ്ങളിൽ സർക്കാർ അവരെ നല്ലത്പോലെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നു ഒട്ടും ഇല്ല എന്ന് തന്നെ പറയുവാൻ അത് കാരണം പലപ്പോഴും അവർ കൊണ്ട് വരുന്ന ഉൽപ്പന്നങ്ങളുടെ അതേ വിലയ്ക്ക് നമുക്ക് ഇവിടെ ഉല്പന്നങ്ങൾ വിൽക്കാൻ പറ്റാതെ വരുന്നു ഇവിടെ ഒരു ദിവസം ഒരു കർഷകന് ഒരു കാർഷിക ജോലിക്ക് ഒരു വ്യക്തി വരണമെങ്കിൽ ആ വ്യക്തിക്ക് ആയിരം രൂപ കൂലി കൊടുക്കേണ്ടതായി വരുന്നു ആയിരം ആയിരം രൂപ കൂലി കൊടുത്ത് ഒരിക്കൽ നമുക്ക് അത് മുതലാകാതെ വരുന്നു അത് നമ്മുടെ കാർഷിക മേഖല വളരെ അധികം ബാധിക്കുന്നു അത് അല്ലാതെ വൻ ബൾക്കായിട്ട് സാധനങ്ങൾ ഇറങ്ങുകയും വലിയ മുതലാളിമാർ അത് സ്റ്റോക്ക് ചെയ്യുകയും അത് നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിൽ ഇല്ലാത്ത സമയത്ത് ഇരട്ടി വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടാക്കിയ വസ്തുക്കൾ നമുക്ക് ഇവിടെ വിറ്റഴിക്കുമ്പോൾ മറ്റു അതിനേക്കാളും വില കൂട്ടി മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ അതിനോട് സഹകരിക്കാതെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വസ്തുക്കൾ കൂടുതലായി വാങ്ങുകയും നമ്മൾ അതടുത്തുകയും ചെയ്യുന്നു ഈ രീതി മാറണമെങ്കിൽ നമ്മുടെ സർക്കാരുകൾ നമ്മുടെ നാട്ടിൽ വൻകിട കാർഷിക സംഭരണങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ കൂട്ടു കൃഷി നടത്താൻ നടത്താൻ സാഹചര്യം ഒരുക്കുകയും ആ കൂട്ടു കൃഷിക്ക് ആവശ്യമുള്ള സാമ്പത്തികവും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ തരുവാനും സജ്ജമായിരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ നമ്മുടെ കാർഷിക മേഖലയെ വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നേരത്തെ നമുക്ക് മഴ കറക്റ്റായിട്ട് കറക്റ്റ് മാസങ്ങളിൽ മനുഷ്യൻ പ്രവചിച്ചിരുന്നു ഇന്ന ദിവസങ്ങളിൽ മഴ പെയ്യുമെന്ന് എന്നാൽ കുറെ കാലങ്ങളായി അങ്ങനെ അല്ല ഇവിടെ സംഭവിക്കുന്നത് പെട്ടന്നുള്ള വലിയ മഴകളും കാറ്റ്കളും വെള്ളപൊക്കവും നമ്മുടെ കാർഷിക മേഖലയെ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കുന്നു അത് നമ്മൾ പ്രകൃതിയെ വളരെ അധികം ചൂഷണം ചെയ്യുന്നതിനാൽ ആണ് ഇത് എന്ന് പലപ്പോഴും തോന്നി പോകാറുണ്ട് പിന്നെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ നിരപ്പായ സ്ഥലങ്ങൾ വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ച് കേരളം ആ കുറച്ച് സ്ഥലത്ത് അതിന് അനുയോജ്യമായ കൃഷി രീതികൾ കണ്ടെത്തുവാനായി നാം വളരെ പാട്പെടുന്നു വർഷങ്ങൾക്ക് മുമ്പേ ചെയ്ത് പോയ അതേ കൃഷി ഉല്പന്നങ്ങൾ മാത്രമാണ് ഇപ്പോഴും നാം ചെയ്ത് പോരാറുള്ളത് അതേ രീതികളും ആ രീതികൾ മാറി കൂട്ട് കൃഷി സമ്പ്രദായം നമ്മുടെ നാട്ടിൽ വരുകയും അതിന് ആവശ്യമുള്ള സഹായങ്ങൾ സർക്കാർ നൽകുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു